ഒരു സുരക്ഷിതമായ അല്ലെങ്കിൽ സുഖപ്രദമായ യാത്രാ നമുക്ക് വേണം അല്ലെങ്കിൽ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് മുന്നേ കുറച്ചു തയ്യാറെടുപ്പുകൾ എടുക്കണം ചെയ്യണം അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ കാറിലോ ബസ്സിലോ പോകുന്നവരാണ് ഈ ദൂരെ യാത്രയാണ് ഒരുപാട് യാത്ര ചെയ്ത് ശീലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചർദ്ദിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അവർക്ക് ചർദ്ദിക്കാതിരിക്കാനായിട്ട് നാരങ്ങ ചെറുനാരങ്ങ പിന്നെ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ കയ്യിൽ വച്ചാലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇരുന്നാലോ ചർദിൽ തടയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഓറഞ്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർദ്ദിലിനെ നമുക്ക് തടയാനായിട്ട് പറ്റും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ നിന്ന് നമുക്കൊരു പില്ല് മേടിക്കാനായിട്ട് സാധിക്കും ആ പില്ല് യാത്ര ചെയ്യുന്നതിന് ഒരു അര മണിക്കൂർ മുന്നേ അത് കഴിച്ചു കഴിഞ്ഞിട്ട് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ യാത്ര ഉടനീളം ചർദ്ദിക്കാണ്ടും ഇരിക്കും അതൊരു വഴിയാണ് പിന്നെ നമുക്ക് യാത്രയ്ക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതുക വെള്ളം കുറച്ച് ഫുഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വിഷപ്പൊക്കെ ഇടക്ക് വരുവാനുണ്ടെങ്കിൽ ഇപ്പോൾ ബസ്സിലൊക്കെ പോവാനുണ്ടെങ്കിൽ ബസ്സ് എല്ലായിടത്തും നമ്മുടെ ഇഷ്ടത്തിന് നിർത്തില്ല അങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ ഇങ്ങനയുള്ള ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ നമ്മുടെ വിശപ്പകറ്റാനൊക്കെ സഹായിക്കും പിന്നെ അത് കഴിഞ്ഞ് അല്ലറ അല്ലറ ചില്ലറ ആവശ്യ ങ്ങളായിട്ടുള്ള

ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനും ഇങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചെടുക്കാം പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ടവ്വൽ ഒരു എക്സ്ട്രാ തുണി ഇപ്പോൾ ഒരു എക്സ്ട്രാ ഡ്രസ്സ് ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക ആണെന്നുണ്ടെങ്കിൽ യാത്രയിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന വസ്ത്രത്തിൽ എന്തെങ്കിലും ചെളി പറ്റുകയോ അഴുക്കാകുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റി പുതിയ ഡ്രസ്സിലേക്ക് ചേഞ്ച് ആവാനും ഒക്കെ സാധിക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി എടുക്കുക പിന്നെ വേറെ ഒരു ഇതെന്നു പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പല പല സ്ഥലത്തു കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിവതും നമ്മുടെ ദേഹത്ത് സ്വർണം ഇടാണ്ടിരിക്കുക പിന്നെ കൈ ഒരുപാട് കാശ് വയ്ക്കാണ്ടിരിക്കുക ഇപ്പോൾ എല്ലാം എലക്ട്രോണിക് ആയതുകൊണ്ട് ഈ മണി ആയിട്ടും നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതു കൊണ്ട് മാക്സിമം കയ്യിലുള്ള കാശ് സൂക്ഷിക്കാൻ നമ്മുടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി പിന്നെ പോകുന്ന സ്ഥലത്തെ പറ്റിയുള്ള ഒരു അറിവും നമുക്കുണ്ടാവണം എവിടെ ആണ് പോവേണ്ടത് എങ്ങനെ ആണ് പോവേണ്ടത് ആരെ കാണാനാണ് പോവേണ്ടതെന്നുള്ളൊരു ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ സുഖപ്രദമായ ഒരു യാത്ര നമുക്ക് ചെയ്യാനായിട്ട് പറ്റും